ഈ പോളിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ സംരക്ഷണം നൽകുന്ന ഒന്നു തന്നെ ആണ് കാരണം കുട്ടികൾക്ക് ഇപ്പം ജനിക്കുമ്പം തന്നെ പല വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട് പല തരത്തിലുള്ളത് ആകാം ഇപ്പം ചിലർക്ക് കൈകാലുകൾ

അവർക്ക് ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ളത് പോളിയോ ഉള്ളത് മ് പോളിയോ കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക്

ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതും വളരെയധികം വലിയ ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ പുതിയ തലമുറയിൽ വളരെ അധികം അസുഖങ്ങൾ പടരുന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത് നമ്മളുടെ ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നോ ഒരുപാട് വൈറസുകൾ

ആരോഗ്യം മ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സുരക്ഷിതത്വം ആവശ്യമാണ് അപ്പം ആ ഒരു സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് പോളിയോ എടുക്കണം അതാത് പ്രായത്തിൽ അതാത് സമയങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ തന്നെ മാക്സിമം കുട്ടികളെക്കൊണ്ട് പോളിയോ എടുപ്പിക്കാനായിട്ട് നോക്കണം അത് ഗ്രാമങ്ങളിലെ ആണെങ്കിലും നഗരങ്ങളിലെ ആണെങ്കിലും കുട്ടികളിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോളിയോ വളരെയധികം നിർബന്ധം ഉള്ള ഒന്നായിട്ട് ഗവൺമെൻറ്

ചില ആളുകൾ പൈസയുടെ കുറവ് മൂലം പോളിയോ എടുപ്പിക്കാതിരിക്കുന്നുണ്ട് അപ്പം ഫ്രീ ആയിട്ട് ഹെൽത്ത് സർവീസ് നൽകുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിരിക്കും